ഞാൻ കഴിഞ്ഞ ദിവസവുണ്ടാക്ക്യപ്പളും നമ്മളെന്ത പാ അടീപ്പിടിച്ചു നമ്മൾ ഫുഡ്ഡിണ്ടാക്കി നമുക്കപ്പം ഫുഡ്ഡ്ണ്ടാക്കി നമ്മൾ മറന്ന് പോകുമ്പോക്കെ നമ്മളടീപ്പിടിക്കും അപ്പം നമ്മളാദ്യം ചെയ്യുന്നത് നമ്മൾ ഒയ് സോപ്പുപയോഗിച്ച് അല്ലെങ്കിൽ ഏറ്റം നല്ലതെന്താന്ന് വെച്ചാൽ നമുക്കടുപ്പിലെ ചായവില്ലെ അടുപ്പിലെ ചായം നമ്മളിട്ട് നമ്മൾ ആ കയിഞ്ഞ പാത്രത്തിലെക്ക് നമ്മൾ നമ്മൾ തേച്ച് തന്നത് തേക്കുക അപ്പം നമുക്ക് പോയിക്കിട്ടും അല്ലാണ്ട് നമുക്ക് ചെയ്യും വിമ്മോ അല്ലെങ്കിൽ എന്താണ് പാത്തര അങ്ങനെ എന്തെങ്കിലു ലിക്കുടുപയോഗിച്ച് നമുക്ക് അത് നീക്കം ചെയ്യാമ്പറ്റും നാരങ്ങനീരൊക്കൊച്ച് സോഡാപ്പൊടി നാരങ്ങനീരൊക്കൊച്ച് നമുക്കത് നീക്കഞ്ചെയ്യാമ്പറ്റും മാക്സിമം നമ്മൾ അത് നിദ് ചെയ്യാണ്ടിരിക്കുക കരിപിടിക്കാതക്കെ അഥവ നമുക്ക് കൈപിടിച്ച ഇങ്ങൻത്തിതക്കെയാണ് ചെയ്യാൻ പറ്റുക ഒന്നാമത് എന്താന്ന്ഞ്ഞവെച്ച് കഴിഞ്ഞാൽ അടുപ്പിലെ ചായകൊണ്ട് നമ്മൾ ജെസ്റ്റൊന്ന് പാത്രം കഴുകുക അല്ലെങ്കിൽ ലിക്വിഡും പാത്രങ്കയ്കാന ലിക്കുഡുപയോഗിച്ച് നമുക്ക് ദിയേമാരി പാത്രം കഴുകണ സോപ്പുണ്ട് അല്ലെങ്കിൽ നാരങ്ങാനീര് സോ സോഡാപ്പൊടീങ്കൂടിട്ട് നമുക്ക് ശരിയ്ക്കും കഴുകിയെടുക്കാം അങ്ങനെ ഇട്ടൈഞ്ഞ നമുക്ക് പകുതിയോളം നമുക്ക് പകുതിയോളമല്ല പൂർണമായിട്ടും നമുക്കത് എട്ക്കാമ്പറ്റും അങ്ങനെയാണ് സാധാണ കരി പിടിച്ച പാത്രങ്ങൾ നമ്മൾ നോമ്മൽ ഒരിതിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോളും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കഴിഞ്ഞ ദിവസോം ഞാൻ പാചകമുണ്ടാക്കിയപ്പോൾ അങ്ങനെ സംഭവിക്കനിടയായി അപ്പോൾ നമ്മൾ അങ്ങനെയാന്ന് ചെയ്തത്